ബെം ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിച്ചതാണ് എൽ കെ ജിയിലേക്ക് ആ അഡ്മിഷൻ ഫീസ് എല്ലാം എങ്ങനെയാണ് ആട അതിലെല്ലാം പെട്ടോ ഫുഡ് എല്ലാം ഫുഡ് എല്ലാം പെട്ടോ ആ ആ ആ അപ്പം ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കരുതേണ്ട ആവശ്യമില്ല ആ ഉച്ചത്തെ ഫുഡ് മാത്രമാണോ അല്ല പതിനൊന്ന് മണിക്ക് ഉണ്ടാവുമോ സ്നാക്സ് ഉണ്ടല്ലേ ആ എത്ര മണി വരെയാണ് ക്ലാസ് നാല് മണി വരെയല്ലേ സ്കൂൾ ബസിൻ്റെ സൗകര്യം എല്ലാം ഉണ്ടോ ഉണ്ടല്ലേ ആ അതെങ്ങനെയാണ് ബസ്സിൻ്റെ ഫീസ് എല്ലാം അതെ അല്ലേ ആ യൂണിഫോം എല്ലാം അതെ അല്ലേ ആ സ്കൂളിൽ നിന്നുതന്നെ സ്റ്റിച്ച് ആക്കണോ യൂണിഫോം അതെ അല്ലേ ആ എന്റേത് മജ്ജെല്ല് ആ നാളെ സ്കൂൾ തുറന്നിട്ടുണ്ടാവുമോ ആ ഏ വെ എത്ര മണിക്ക് തുറക്കുന്നത് എത്ര മണിക്ക് വരണം ഞാൻ പത്ത് മണിക്കല്ലേ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ ഡോക്യുമെന്റ്സ് ആയിട്ട് ആ ഫോട്ടോ വേണോ ഒരു ഫോട്ടോ ആ നാളെ അപ്പം ഞങ്ങൾ നാളെ വരാം കുട്ടീനെ കൂട്ടിയിട്ട് കൊണ്ടുവരാം ആ ശരി അതെ അല്ലേ അതെ അല്ലേ ആ ശരി ആ പത്ത് മണിയാവുമ്പം എത്തും ഓക്കെ മേഡം താങ്ക് യൂ